ആധാർ അപ്ഡേറ്റ് ഞാൻ കൊടുത്തേക്കണത് അപ്പോൾ അത് അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കണു അവർ അപ്ഡേറ്റ് ചെയ്യുന്ന എന്നുള്ള അത്യാവശ്യ കാര്യായിന് അത് എത്രേയും പെട്ടന്ന് റെഡി ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണു അതിൻ്റെ സ്റ്റാറ്റസ് എപ്പോഴും ഇവിടുത്തെ എന്തായിന്ന് എപ്പോഴും ഓൺലൈനിൽ പരിശോധിക്കണം ആധാറു അപ്ഡേറ്റ ചെയ്യാൻ കൊടുത്തിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പം അത് എന്തായാലും റെഡി ആകണം പലർക്കും അങ്ങനെ റെഡിയ ആകണ ഞാനൊക്കെ കേൾക്കുന്നുണ്ട് എന്തോ ഡീറ്റെയിൽസ് മിസ്റ്റേക്കായി എന്നൊക്കെ ഡീറ്റെയിൽസ് തെറ്റി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇതിൽ അങ്ങനൊന്നും ഇല്ലാന്നാണ് എനിക്ക് ഉറപ്പ് അപ്പം എത്ര പെട്ടന്നത് റെഡി ആകും ഒന്ന് അപ്ഡേറ്റായി വരുന്ന പ്രതീക്ഷിക്കാമല്ലേ അപ്ഡേറ്റ് ആകണം എത്രേം പെട്ടെന്ന് അതിൻ്റെ ഓൺലൈൻ സ്റ്റാറ്റസ് അല്ല അതിൻ്റെ സ്റ്റാറ്റസ് എപ്പോൾ നമ്മൾ ഓൺലൈനൽ നിന്ന് ഇടക്ക് ഇടക്ക് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം ഓൺലൈനിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താ ഏതാണ് എന്നൊക്കെ ഇടക്ക് ഇടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്നാൽ ശരിയാവുകയുള്ളൂ അല്ലെ ഇതു ആയി പറയാൻ പറ്റില്ല ലാസ്റ്റ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല പിന്നെ ടൈം എങ്ങനെ വെകിയേക്കല്ലേ അപ്പോൾ അതിൻ്റെ ഓൺലൈനിലിങ്ങനെ അതിൻ്റെ സ്റ്റാറ്റസ് നോക്കണം എന്തായിന്ന് ഒക്കെ